എനിക്ക് കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വെള്ളം ചൂടാക്കാൻ വേണ്ടി വെള്ളം ഗ്യാസിൽ വച്ചിട്ട് പോയി വച്ചിട്ട് പോയപ്പഴത്തേന് ഞാൻ എന്നിട്ട് പോയി കിടന്നു ജസ്റ്റ് ഒന്ന് വെറുതെ കിടക്കാൻ പോയതായിരുന്നു അപ്പോഴത്തേന് അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങി അങ്ങനെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു സ്മെല്ല് കേൾക്കുന്നു അങ്ങനെ ആ സ്മെല്ല് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ഓടി ചെന്നിട്ട് നോക്കി ഇത് എവിടെ നിന്നാണ് ഈ സ്മെല്ല് എന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഗ്യാസ് ഗ്യാസ് നല്ല രീതിയിൽ മണക്കുന്നു അങ്ങനെ ഗ്യാസ് മണക്കുന്നത് അത് കേട്ടു ഓടി ചെന്ന് നോക്കിയപ്പം പാത്രം നല്ല വെള്ളം നിറയെ വച്ചിരുന്ന വെള്ളം എല്ലാം വറ്റി പാത്രം നല്ല രീതിയിൽ വേഗം തിളച്ച് ചൂടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന പാത്രം അങ്ങനെ പെട്ടെന്നെയ്യുമ്പഴേ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പഴത്തേക്ക് എന്തുവാ അവിടെ ഭയങ്കരമായ സ്മെല്ലായി പോയി അപ്പോഴത്തേന് അങ്ങനെ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോഴത്തേക്കും പിന്നെ പിന്നെ ഓടിപ്പോയി അപ്പഴത്തേക്കും ആ പാത്രം എടുത്ത് വെള്ളത്തിൽ ഇട്ട് ആ അത് കഴിഞ്ഞപ്പഴത്തേക്കും ഇങ്ങനെ കുറേ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്യാസ് വച്ചിട്ട് കുക്കറ് സാധനം വച്ച് വിസില് അടിക്കാനും ഒരുപാട് നേരം പിന്നെ പാത്രത്തിൽ ഓരോ കാര്യങ്ങൾ വച്ച് കറിയായാലും ഒരു ഒരു കാര്യങ്ങൾ വച്ച് ചട്ടിയൊക്കെ കരിഞ്ഞു പോയാലും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്